ആ അതെ പറഞ്ഞോളൂ ആ അത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ശനിയും ഞായറും അപ്പം അത് രണ്ട് മണിക്കൂറാണ് എടുക്കുന്നത് ദിവസം അത് ആയിരം രൂപയാണ് അത് പിന്നെ ഒരു മാസത്തേക്ക് ആയിരം

അപ്പം ആ ഇതെല്ലാം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നേരിട്ട് വന്നാലേ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ ഡ്രസ്സ് നമ്മല ഇവിടെ എടുത്തു കൊടുക്കുവാണ് തയ്പ്പിച്ചിട്ട് അളവെടുത്ത് തയ്പ്പിക്കുകയാണ് തയ്പ്പിച്ചിട്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ഇവിടുന്ന് തന്നെ കൊടുക്കും ആ അതെയതെ അതെ ഇതിനെല്ലാം ഒരേ എമൗണ്ട് ആണത് ആ അതെ അതെ ആ ആ ആ ആ ആ ആ തീർച്ചയായിട്ടും അങ്ങനെ തയ്ക്കാം അത് രണ്ടുപേരുടെയും സെപ്പറേറ്റ് എമൗണ്ട് അടച്ചാൽ മതി അത് ഒരുമിച്ച് എടുത്തു തരാം കേട്ടോ അപ്പം കൂടുതൽ അതിൻ്റെ വസ്ത്രത്തിനും പല പല ആഭരണങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് നേരിട്ട് വരുമ്പോളത് ഓരോന്നോരാന്നായിട്ട് ഞാൻ കാണിച്ച് തരാം അതിനെല്ലാം കൂടെ ഒരു എമൗണ്ട് നല്ല ഒരു എമൗണ്ട് വരുന്നുണ്ട് ഒരാൾക്ക് തന്നെ കേട്ടോ ആ എമൗണ്ട് മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ച്ച് തന്നെ റെഡി ആക്കി തരും അങ്ങനെയാണ് പിന്നെ അത് ആഭരണങ്ങളും കയറേണ്ടതാണ് ആ അപ്പോൾ ക കഥകളി കഥകളി പഠിച്ചിട്ടുണ്ടോ നേരത്തെ ആ ആ ആ ആ അതെ അതെ അതെ ആ ആ ആ തീർച്ചയായിട്ടും ആ അതെ ആ ആ ആ ആ ആ ആ ആ ഞാൻ എന്തായാലും അതിൻ്റെ കാര്യങ്ങളും മറ്റും പറയാൻ നേരിട്ടൊന്ന് വന്നോളൂ മറ്റന്നാൾ ഞാനിവിടെ ഉണ്ട് ആ ഓക്കെ അപ്പം ധൈര്യമായിട്ട് മറ്റന്നാൾ വന്നോളൂ കേട്ടോ അത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് വരണേ ശരിയെന്നാൽ ശരി ശരി ആ